ഹലോ

അതെ ഇവിടെ ഇപ്പോൾ ഈദിൻ്റെ ഓഫർ ഉണ്ട് ചേട്ടാ പിന്നെ നെയ്ച്ചോറിൻ്റെ അരി ഒക്കെ നമ്മൾ നൂറ്റിപ്പത്ത് രൂപയുള്ളതിന് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ചിക്കനൊക്കെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ ഇരുന്നൂറ്ററുപത് ആ റേറ്റ് ആണല്ലോ ഇപ്പം ആ ഇവിടെ നമ്മൾ ഒരു ആറുപത് രൂപ കുറച്ച് ഇരുന്നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഫ്രീസ് ചെയ്ത ചിക്കനുണ്ട് അല്ലാണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചിക്കനും ഉണ്ട് അതുപോലെ ഫിഷിനും അതുപോലെതന്നെ നിങ്ങൾക്ക് അതായത് പിടയ്ക്കുന്ന മീനൊക്കെ വേണമെങ്കിൽ അങ്ങനെ തരും അല്ലാണ്ട് വേണമെങ്കിൽ അല്ലാണ്ടും തരും നമ്മളിവിടെ തന്നെ ക്ലീൻ ചെയ്തൊക്കെ തരും ഫിഷൊക്കെ നമ്മളിവിടെ തന്നെ ക്ലീൻ ചെയ്ത് തരും നിങ്ങൾക്ക് നിങ്ങൾ ആവിശ്യപ്പെടുകയാണെങ്കിൽ അതിനൊക്കെ അഫോർഡബിൾ പ്രൈസേ ഉള്ളു നിങ്ങൾ ജസ്റ്റ് എവിടെയാണ് നിങ്ങളെ വീടെവിടെയാണ് പനവല്ലിയല്ലേ ആ പനവല്ലി എവിടെയായിട്ട് വരും തിരുനെല്ലി ആ ഒരു ഏരിയ അല്ലേ ആ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരല് ആ വരല് ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തു വേണമെങ്കിലും ഇഷ്ടമുള്ളത് മേടിക്കാം ഇപ്പൊഴൊരു ഒരാഴ്ച്ചത്തേക്ക് ഒരു ഈദിനെ ഒരു ഓഫറുണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ ആ ഇവിടെ എല്ലാത്തിനും ഓഫറുണ്ട് ചേട്ടാ ഇപ്പോൾ തക്കാളിക്കൊക്കെ തക്കാളിക്കൊക്കെ പത്ത് രൂപ അഞ്ച് രൂപ ആ ഒരു റേറ്ററിലൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിക്ക് അതേപോലെ പുറമെയൊക്കെ മുപ്പത് രൂപയാണ് ഇവിടെ ആകെ ഇരുപത് രൂപയൊക്കെ ഉള്ളു പിന്നെ ആട്ടപ്പൊടിക്കൊക്കെ അഞ്ച് കിലോ ആട്ടപ്പൊടിക്കൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ ഉള്ളു അതായത് ആശിർവാദിൻ്റെ ആട്ടപ്പൊടിക്ക് പിന്നെ സോപ്പുപൊടിക്കൊക്കെ അഞ്ച് കിലോ വരുന്നതിന് നൂറ്റമ്പത് രൂപയെ ഉള്ളു അങ്ങനെ കുറേ ഓഫറുകൾ ഉണ്ട് എങ്ങനെ അല്ലല്ലോ സോപ്പുപൊടിക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേറ്റ് ഒക്കെ അല്ലെ വരുന്നത് നമ്മളിവിടെ പിന്നെ ഉജാല അതിൻ്റെ ഒക്കെ ആണ് കൊടുക്കുന്നത് സോപ്പുപൊടി നല്ല ബ്രാൻ്റഡ് സോപ്പുപൊടിതന്നെ ആ വാഷിങ്ങ് മെഷീനിലോക്കെ ഈദിൻ്റെ സ്പെഷ്യൽ ഓഫറുണ്ട് ഇപ്പോൾ വാഷിങ്ങ് മെഷീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ കൂടെ പിന്നെ നമുക്കൊരു ഫ്രിഡ്ജ് ഫ്രീ ഉണ്ട് യെസ് യെസ് ആ ഫ്രിഡ്ജ് ആണ് സർ അതെ അതെ ഓക്കെ സർ